എന്റെ വീട്ടില് ഒരു ഒരു പട്ടിക്കുട്ടിയും ഒരു ആടുമാണ് ഉണ്ടായിരുന്നത് പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മൂന്നു മാസം പ്രായമൊക്കെ ആയപ്പം അവനെ കൊണ്ടുവന്നതാണ് ലാബ്ഡോറായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര വികൃതിയുള്ള കൂട്ടത്തിലായിരുന്നു പട്ടി ഭയങ്കര രോമവും ആയിരുന്നു അപ്പം ഞങ്ങളതിനെ കുഞ്ഞിലേ കൊണ്ടുവന്നത് ആയതുകൊണ്ട് അവനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചാണ് വളര്ത്തിയിരുന്നത് പക്ഷേ ഇവന് പാലൊക്കെ നമ്മള് അതിന്റെ പൊടികള് വാങ്ങിച്ചിട്ട് വെള്ളത്തില് കലക്കിയൊക്കെയാണ് കൊടുക്കുന്നത് അവന് അമ്മ അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പാല് കൊടുക്കുവായിരുന്നു ഒരു മണിക്കൂര് ഇടവിട്ടിട്ട് ഞങ്ങള് പാല് കൊടുക്കുവായിരുന്നു അവന് അവന് ഭയങ്കര അതുപോലെ പെഡിഗ്രി കൊടുക്കുവായിരുന്നു പിന്നെ ഇവനെ വെറ്റിനറി ഡോക്ടറെ കാണിച്ച് ഇവന് വിര ഇളകാനുള്ള മരുന്നുകള് കൊടുക്കുവായിരുന്നു പിന്നെ നഖങ്ങളൊക്കെ ഞങ്ങളെപ്പോഴും പിന്നെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുവായിരുന്നു ഗ്രൂം ഇതിന്റെ രോമം നന്നായിട്ട് കൂടുതൽ ആയത് കൊണ്ട് ഇവന്റെ രോമം ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങള് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഇവനെ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളാഴ്ചയില് രണ്ടു ദിവസമൊക്കെ കുളിപ്പിക്കത്തുള്ളു കാരണം ഇവന് രോമകെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവന്റെ രോമം ഇവന് ദേഹം ഉണങ്ങാൻ കുറച്ച് പാടാണ് അപ്പം അങ്ങനെ ഒരാഴ്ചയില് രണ്ടു ദിവസമൊക്കെ കുളിപ്പിച്ച് തോര്ത്തി അവനെ ഞങ്ങള് കുറച്ച് നേരം വെയിലത്ത് നിര്ത്തും അല്ലന്നുണ്ടങ്കില് പിന്നെ നന്നാ അവനു ബുദ്ധിമുട്ടൊന്നും തറയിൽ കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങള് ഈ രണ്ടു ദിവസം കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സന്തോഷമായിട്ട് പൊക്കൊണ്ടിരുന്ന കൂട്ടത്തിലാരുന്നു പിന്നെ അവര് ആണ് ആണ് പട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ അവന് എന്ത് കുറച്ച് വികൃതി കുറച്ച് കൂടുതലായിരുന്നു